ഞാൻ രണ്ടാഴ്ച മുൻപ് ആമസോണിൽ കൂടെ ഒരു കിച്ചണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്ക് കണ്ടൈനർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിപ്പം ആ കണ്ടൈനർ ഡെലിവറി ആയിട്ടുണ്ട് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടതിനേക്കാട്ടിലും വളരെ നന്നായി നല്ലൊരു പ്രോഡക്റ്റ് ആണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി എൻ്റെ കിച്ചണിലേക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ളൊരു സാധനമായിരുന്നു ആ പ്ലാസ്റ്റിക്ക് കണ്ടൈനർ ഞാൻ കടയിൽനിന്ന് വാങ്ങിച്ചതിനെക്കാട്ടിലും ക്വാളിറ്റിയും അതിൻ്റെ രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഭംഗിയുള്ളതാണെനിക്ക് കിട്ടിയത് എന്ത് കൊണ്ടും ഒരു നല്ല പ്ലാസ്റ്റിക്ക് കണ്ടെയ്നർ ആണ് നല്ല ക്വാളിറ്റിയുണ്ട് നല്ലൊരു നല്ല ഫൈബറിൻ്റെ കണ്ടെയ്നർ ആണ് നേരത്തെ ഞാൻ കിച്ചണിൽ ചെറിയ പ്ലാസ്റ്റിക്ക് കണ്ടെയ്നറൊക്കെ യൂസ് ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ നശിച്ച് പോയി എന്നിട്ട് ഇപ്പം എനിക്ക് കിട്ടിയത് നല്ല വലിയ കണ്ടെയ്നർ ആണ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതിനകത്ത് കണ്ടൈൻ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടും വളരെ ഹെൽപ്പ്ഫുള്ള് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ ഞാൻ ഞാൻ ഒരുപാട് ഈ ഡെൽവിയറിയിൽ ഞാൻ ഒരുപാട് സന്തോഷിതയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽക്കൂടെ ഒരു കിച്ചണിൽ വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിക്കുന്നത് അതൊരു പ്ലാസ്റ്റിക്ക് കണ്ടൈനർ അതും വളരെ നല്ല ക്വാളിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടും ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി എല്ലാ കിച്ചണിലേക്കും ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി